അതായത് ഉൾനാടുകളിൽ ഉള്ളവരൊക്കെ അതായത് ഇങ്ങനത്തെ ഗെയിമിംഗ് കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പം കൂടുതൽ നമ്മൾ ഇപ്പോൾ കൊറോണ വന്ന ടൈമിലാണ് കൂടുതലും ഗെയിം കളി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തുടങ്ങി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് ജോലിക്കൊന്നും പോകാണ്ട് എല്ലാവരും അതായത് കുടുംബത്തിലുള്ള എല്ലാവരും വീട്ടിൽ ഒരുമിച്ച് ഇരുന്നിട്ട് സമയം ആയിരുന്നു നമ്മുടെ കൊറോണ ടൈം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടേ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് ഒന്നൂല്ലേ വീട്ടുകാരോട് വർത്തമാനം പറഞ്ഞു ഇരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബികൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക പിന്നെ ഫുൾ ടൈം നമുക്ക് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലലോ അപ്പം ആ ഒരു ടൈമിൽ ആയിരുന്നു കൂടുതലും ഗെയിമിൻ്റെ അതായത് ഗെയിമുകൾ കാര്യങ്ങളൊക്കെ കുട്ടികൾ ആണെങ്കിലും കളിക്കാനൊക്കെ തുടങ്ങിയത് മെയിനായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ടൈമിൽ ഓൺ ലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ കൂടുതലും ഫോണിൽ തന്നെ മുഴുകി ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നു അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും ഗെയിമിലും കാര്യങ്ങളിലും ഒക്കെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത ഒരു ടൈമായിരുന്നു അതുകൊണ്ടുതന്നെ പിന്നെ കുറേ പേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം എല്ലാം കളിച്ച് കുറേ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ കുറേ പേർക്ക് ഒക്കെ കുറേ പൈസ നഷ്ടമായി അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ നമ്മൾ ഓരോ ഇപ്പോൾ ഗെയിമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നത് പോലെ ഉണ്ടാകും നമ്മുടെ അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ